എനിക്ക് കൂടുതൽ എഴുതുവാനും ആഗ്രഹമുള്ളത് കഥയെഴുതുവാനാഗ്രഹമുണ്ട് ചില ചില കഥ എഴുതാറുണ്ട് അതുപോലെതന്നെ കാവ്യ ഈ കവിതകള് എഴുതും പല നല്ല കവിതകള് നമ്മള് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി എഴുതാറുണ്ട് ഈ കൂടുതലെഴുതുക എന്നുള്ളത് നമുക്ക് നമ്മുടെ മലയാള ഭാഷയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ നമുക്ക് സാധിക്കും ഇപ്പോളുള്ളവര് കൂടുതലും എഴുത്തും വായനയുമില്ലാതെ മൊബൈലിലൂടെയും വാട്ട്സാപ്പിലൂടെയും സംസാര വാട്ട്സാപ്പിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതലും വരുന്നത് യു ട്യൂബ് വാട്ട്സപ്പ് അങ്ങനുള്ള ഐറ്റങ്ങളല്ലാതെ നമ്മള് മറ്റേ നേരിട്ട് സംസാരിക്കുക പോലുമില്ല ആ കൂട്ടത്തിൽ പണ്ടൊക്കെയാണെങ്കില് നമ്മള് എഴുത്തുകള് എഴുതും അതിന് ലെറ്ററെഴുതിയാണ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്തിപ്പോള് നമ്മള് സെക്കൻഡുകൾ കൊണ്ടുതന്നെയാണ് കാര്യങ്ങൾ നമ്മൾ ഫോണിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് നമ്മള് കൂടുതലും എഴുതുവാൻ സാധിക്കുന്നു നോട്ടുകളെഴുതുക അതുപോലെതന്നെ നമ്മളുടെ ഇപ്പോള് പലരും ബൈബിൾ കൈയ്യെഴുത്ത്മാ കയ്യെഴുത്ത് കുറിയുണ്ടാക്കുന്നു അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മള് ബൈബിള് പഠിക്കുന്നതിനും ബൈബിളുൾപ്പെടെ എഴുതിപ്പഠിച്ചാൽ നമ്മുടെ മനസ്സില് നില്ക്കും കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാചാ വചനങ്ങൾ എഴുതുക ആ വചനത്തിലൂടെ കിട്ടുന്ന അറിവുകൾ നമ്മള് മറ്റുള്ളവരെ എഴുതിയറിയിക്കുവാനും നല്ല നല്ല ഭാഷാ ശുദ്ധി വരുത്തുവാനും ഒക്കെ എഴുത്ത് നമ്മളെ സഹായിക്കുന്നു അതുപോലെതന്നെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും എഴുത്ത് കുറച്ച് മൊബൈലിലൂടെയാണ് കാര്യങ്ങൾ കൂടുതലും സംസാരിക്കുന്നെ അതുകൊണ്ട് അവരെയും നമ്മള് നന്നായി എഴുതി നോട്ട് എഴുതിപ്പഠിക്കുവാനും എഴുതി എഴുതി നല്ല ആശയങ്ങൾ ഉണ്ടാക്കുവാനും ഭാഷയുടെ മലയാളഭാഷയെ നല്ലരീതിയില് കൊണ്ടുവരാനും അവരെ നമ്മള് പ്രോൽസാഹിപ്പിക്കുക അതുപോലെ നമ്മളും കൂടുതൽ എഴുതി മറ്റുള്ളവർക്ക് പഴയപോലെതന്നെ നമ്മള് ലെറ്റർ എഴുതാൻ മടികാട്ടരുത് അതുപോലെതന്നെ ക്രിസ്മസ് കർഡുകളയക്കാറുണ്ട് അതൊക്കെ ഇപ്പോള് എല്ലാം ഓൺലൈൻ പരിപാടികളാണ് നമ്മളതെല്ലാം പഴയരീതിയിൽ തന്നെ എഴുതി അറിയിക്കുക അപ്പോൾ ഒന്ന് വായിക്കുക നമ്മളീ എഴുതുന്ന എഴുത്ത് കുറെ നാള് കഴിയുമ്പോള് അതോന്നിരുന്നെടുത്ത് വായിച്ചാൽ ആ പഴയ ആശയങ്ങൾ മറ്റൊന്ന് നമ്മള് കേള്ക്കുക എന്നു പറഞ്ഞാൽ കേട്ടു മറന്നുപോയി ഈ എഴുത്തുകൾ നമ്മളിപ്പോള് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് ആ എഴുത്തുകൾ നമുക്ക് വീണ്ടും വായിക്കുവാൻ സാധിക്കും അപ്പോള് അങ്ങനെ നല്ല നല്ലനല്ല നോട്ടുകൾ എഴുതുക ആശയങ്ങളെഴുതുക ആശയങ്ങളെഴുതുക അതുപോലെതന്നെ ആത്മീയമായ കാര്യങ്ങളെഴുതുക അങ്ങനെ എഴുതി എഴുതി നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ വളർത്തുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് പ്രായോജനകരമായ രീതിയിലുള്ള എഴുത്തുകളും അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ പറ്റിയ നല്ല നല്ലയാശയങ്ങൾ എഴുതിയറിയിക്കുക അതൊക്കെയാണ് നല്ല കാര്യങ്ങൾ